വരക്കുന്നത് നന്നായിട്ട് പടം വരക്കും അത് എൻ്റെ അച്ഛാച്ഛൻ എൻ്റെ ചാച്ചൻ പടം വരക്കുന്ന നന്നായിട്ട് പടം വരക്കുന്ന ആളായിരുന്നു അപ്പം പടം വരക്കുന്ന കണ്ട് അങ്ങനെ ഞാൻ ചെറിയ ചെറിയ പടങ്ങൾ നല്ല ചെറിയ പൂക്കൾ ചെറിയ കുഞ്ഞിപ്പക്ഷികൾ അങ്ങനെ പടം വരച്ച് നല്ല കഴിവുള്ളൊരാളായിരുന്നു ഞാൻ കാരണം എനിക്കേറ്റവുമിഷ്ടം കുഞ്ഞിക്കിളികൾ മരച്ചില്ലയിലിരിക്കുന്നത് അതുങ്ങളിങ്ങനെ അനങ്ങുന്നത് അങ്ങനെയൊക്കെ ചെറിയ പടങ്ങൾ ഒത്തിരി വലിയ വലിയ പടങ്ങളല്ല അപ്പം ഈ ചെറിയ പടങ്ങൾ വരച്ച് അല്ലെങ്കിൽ അതിൻ്റെ കളർ കൊടുത്ത് അങ്ങനെ ഇങ്ങനെ അതൊരു പ്രത്യേകമൊരു താല്പര്യം തോന്നി കാരണം എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും ചെറിയ ചെറിയ പടങ്ങൾ വലിയ വലിയ പടങ്ങൾ ആർട്ട്സുകാരല്ല ചെറിയ ചെറിയ പടങ്ങൾ വരച്ച് കളർ കൊടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കും ആസ്വദിക്കും അപ്പം അതു നല്ല ഭംഗിയാണത് കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുഞ്ഞിക്കിളികളെ വരക്കുക മരച്ചില്ലയിലിരുന്ന് കുഞ്ഞിക്കിളികളെ വരച്ച് അ അതിങ്ങനെ നോക്കിയിരിക്കുന്നതു കാണാൻ വലിയൊരു കൊതിയാണ് കാരണം ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ച ഓരോ ജീവജാലങ്ങളെയും നമ്മുടെ കൈകളിലൂടെ അതു വരച്ച് കാണുമ്പോൾ അല്ലെങ്കിലത് വരയ്ക്കുമ്പം ഒരു പ്രത്യേക ഒരു ഒരു ഒരു സന്തോഷമാണ് അത് ഒന്നാം ക്ലാസ് മുതൽ ഇങ്ങനെ കുഞ്ഞി കിളികളെ ഇങ്ങനെ വട്ടമിടും ഒരു ചുണ്ട് വെക്കും കുഞ്ഞു കാല് വെക്കും എന്നിട്ടൊരു വര വരക്കും അങ്ങനെ വരച്ചു വരച്ചു വരച്ചു കിളികളെ വരക്കാൻ വലിയൊരു താല്പര്യം അതായിരുന്നു ഇഷ്ടം പിന്നെ എൻ്റെ ചാച്ചന് അങ്ങനെ എൻ്റെ പപ്പ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ വരയ്ക്കും ആ വരയ്ക്കുന്നതു കാണുമ്പോൾ കൊതി വരും അപ്പം ഞാൻ പേനയെടുത്തു കൊണ്ട് അല്ല പെൻസിലെടുത്തു കൊണ്ട് ഇങ്ങനെ ചെല്ലും പപ്പയുടെ അടുത്ത് ഇങ്ങനെ ഈ പപ്പ വരക്കുന്നതു കാണുമ്പോൾ ചെറിയ രീതിയിലൂടെ നല്ല കുഞ്ഞിക്കിളികൾ കുഞ്ഞു പൂക്കൾ ആ ചെറിയ വീട് അങ്ങനെയെല്ലാം ചെറുത് ചെറുതായിട്ടേ വരക്കുകയുള്ളൂ പേപ്പറിൽ ഒത്തിരി വലുതായിട്ട് അങ്ങനെ വരക്കുകയില്ല കാരണം ഏറ്റവുമിഷ്ടം ഇങ്ങനെ ചെറുതായിട്ട് വരച്ച് നല്ല കളർ കൊടുത്ത് അല്ല നല്ല ഡിസൈൻ കൊടുത്ത് ഇങ്ങനെ വളരുക എന്നുള്ളതായിരുന്നു അത് ഇപ്പോഴും താൽപര്യമാണ് കാരണം എൻ്റെ ചാച്ചൻ കാണിച്ചു തന്ന ആ ഒരു ആ ഒരു ചിത്രകല അല്ലെങ്കിൽ ആ പടം വര അത് ഇപ്പോഴും താത്പര്യമാണ് അത് ഞാനെൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കും പിന്നെ ഈ ഈശോയുടെ രൂപമൊക്കെ വരക്കും ചെറുതായിട്ട് തിരുഹൃദയരൂപം അങ്ങനെ വരച്ച് വരച്ച് വരച്ച് വരച്ച് ഇപ്പം ഏതു പടം കണ്ടാലും അല്ല ഏതു പടം വരക്കണമെന്നു തോന്നിയാലും പെൻസിലെടുക്കും വേഗം അതു വരയ്ക്കും കാരണം ചെറുപ്പത്തിലേ ഒരു പടം വര ഇഷ്ടമായിരുന്നതു കൊണ്ടല്ലാ എൻ്റെ അച്ഛാച്ഛൻ കാണിച്ചു തന്ന ആ ഒരു നല്ലൊരു ചിത്രകല അല്ല ചിത്രരചന അത് എനിക്കത് വളരെ താല്പര്യമായിട്ടു തോന്നി അപ്പം ഞാനത് വരയ്ക്കും അതെൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തു അവരിതു പോലെ തന്നെ ചെറുത് അവർ നല്ല പടം നന്നായിട്ട് പടം വരച്ച് നല്ല കഴിവോടു കൂടി അവർ മുന്നോട്ടു പോകുന്നു